ഉം വാര്ത്ത മാധ്യമങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ കാണിക്കുന്നുണ്ട് ഒരുപാട് ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ ഉള്കൊള്ളിച്ച് കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ പെരുപ്പിച്ച് നമ്മുടെ വാര്ത്തയിലേക്കാക്കും അങ്ങനെ ഉള്ളവരാണ് മാധ്യമക്കാർ മെയിൻ ആയിട്ട് പറയുവാണെങ്കില് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും അവർ അതില് എഴുതി പിടിപ്പിക്കുന്നത് മാധ്യമങ്ങളില് ചര്ച്ച ചെയ്യപ്പെടാത്ത ഒരുപാട് വിഷയങ്ങളുണ്ടാവും ചില ചില സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കില് അവർ മാധ്യമങ്ങളെയും അതായത് നാട്ടുകാരെ പോലും അറിയിക്കാത്ത അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഉണ്ട് ഉണ്ടാവും പിന്നെ കുറെ ഒരു തൊണ്ണൂറ് ശതമാനവും മാധ്യമങ്ങള് അറിയും എന്നാണ് എന്റെ ഒരു വിശ്വാസം എങ്ങനെയാണെങ്കിലും ഒക്കെ അറിഞ്ഞിട്ട് അതായത് അത്യാവശ്യം വലിയ പ്രശ്നങ്ങൾ കേട്ടോ അതായത് പീഡനം കൊള്ള പിന്നെ അങ്ങനെ കുറേ കുറേ വാര്ത്തകള് ഉണ്ടല്ലോ അങ്ങനത്തെ കുടുതല് അവർ അറിയാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ അവര്ക്ക് ഫുള് ആയിട്ട് കവര് ചെയ്യാന് പറ്റിയെന്ന് വരില്ലല്ലോ അപ്പോൾ കവര് ചെയ്യാന് പറ്റാത്ത കാര്യങ്ങളും ഉണ്ടാവും